മനുഷ്യജീവിതത്തില് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനോദം മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തില് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം മറന്ന് ഫാമിലിയോടൊപ്പം പുറത്ത്പോയി ഒന്ന് റിലാക്സാവുക അതൊക്കെയാണ് വിനോദംകൊണ്ട് നമ്മളുദ്ദേശിക്കുന്നത് ഇപ്പോള് കുട്ടികളുടെ ഇടയിലാണെങ്കിൽ അവർ കൂടുതൽ ഫോണുകളും പിന്നെ ഡ്രാമകള് സീരീസുകള് മ്യൂസിക്ക് ഗെയിംസിനൊക്കെയാണ് കൂടുതല് സ്പേസ് കൊടുക്കുക വിനോദയില്ല ഇപ്പോഴും മനുഷ്യസംസ്കാരത്തിന്റെ ഒരു അടിസ്ഥാന വശമാണ് അല്ലെങ്കില് ഒരു അഭിവാജ്യ ഘടകമാണെന്ന് പറയാം കാലങ്ങളായിട്ടത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാല് സംഗീതങ്ങളും നൃത്തങ്ങളും കഥപറച്ചിലുകളും അതക്കേന്നു പറഞ്ഞാല് ഒരായിരം വർഷങ്ങളോളം പഴക്കമുള്ളതാണ് അതിൽനിന്നൊക്കെ മാറി ഇപ്പോള് കൂടുതലും ആളുകൾക്കിടയില് സ്വീകാര്യതയുള്ളത് ഈ സ്പോർട്സ്സ് ഫുട്ബോളിന് ക്രിക്കറ്റിനൊക്കെയാണ് വിനോദത്തിന്റെ ആദ്യകാല രൂപങ്ങൾ വാക്കാലുള്ള കഥപറച്ചിലുകള് നാടകങ്ങളൊക്കെയാണ് അതിൽനിന്നൊക്കെയിപ്പോള് വളരേയധികം വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രാമകളും മ്യൂസിക്കുകളും ഫിലിംസ്സും ഗെയിംസ്സൊക്കെ വന്നിരിക്കുന്നത് ജോലികളുടെ ദൈനംദിനജീവിതത്തില് ജോലിയോടുള്ള ഭാരം ഇറക്കിവെച്ച് മനുഷ്യനൊന്ന് പുറത്തുപോയി റിലാക്സാവാനായിട്ട് വേറെ നാടുകളിലേക്ക് ഒരാഴ്ച്ചത്തെ ട്രിപ്പിനൊക്കെ പോകാറുണ്ട് അത് ഫാമിലിയുടൊപ്പമായിരിക്കും പുറത്തുനിന്ന് അവർ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ എൻജോയ്ഫുള്ളായിട്ട് തിരിച്ചുവരികയും ചെയ്യുന്നു ഒരുപക്ഷേ അതിൽനിന്ന് അവര് കൂടുതല് ഇപ്പോള് പുറത്തെ സംസ്ക്കാരവും അവിടത്തെ കൾച്ചറും പഠിക്കാനും പുതിയ ഭാഷ പഠിക്കാനും അതിനൊക്കെ കൂടുതലവസരം കിട്ടാറുകളുണ്ട് അവസരങ്ങൾ കിട്ടാറുണ്ട് പിന്നെ ഇന്ത്യയുടെ ഊർജസ്വലമായ സംസ്കാരത്തിൻ്റെ ഒരവിഭാജ്യ ഘടകമാണ് കഥപറച്ചില് വെള്ളിത്തിരയിലെ സിനിമകള് ടെലിവിഷൻ പരിപാടികൾ ഇപ്പോള് ടെലിവിഷൻ പരമ്പര കൂടുതല് സീരിയലുകള് അഡിക്റ്റായിട്ട് കാണുന്നത് പ്രായമായവരാണ് അവരതിൽ നിന്ന് വിനോദം കണ്ടെത്തുന്നു അത് അവര് കാണാൻ കൂടുതല് വിലമതിക്കുന്നതാണ് പിന്നെ കുട്ടികളാണേൽ കൂടുതൽ ഫോണിനോടും അതിലെ സീരീസ്സ് ഡ്രാമകള് മ്യൂസിക്ക് എന്തെങ്കിലും സങ്കടം വന്നുകഴിഞ്ഞാല് അതിന് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ മ്യൂസിക് വളരെ നല്ലതാണ് പിന്നെ പണ്ടത്തെ വിനോദ രൂപങ്ങളെ അപേക്ഷിച്ച് ഇന്ന് എല്ലാം പുതിയതിലേക്ക് വെച്ചടി വെച്ചടി കയറുകയാണ് പണ്ടത്തെ കഥപറച്ചിലുകളും സംഗീതത്തിനോട് നൃത്തം അതിനൊക്കെ മനുഷ്യരിലേക്കിപ്പോഴും സ്പേസുണ്ടെങ്കിലും പണ്ടത്തത്രേം അത്രയിതല്ല